സ്കൂളുകളില് ചരിത്രം പഠിപ്പിക്കുന്നുണ്ടല്ലോ നമ്മള് ജോഗ്രഫിയും ഹിസ്റ്ററിയിലും നമുക്ക് ചരിത്രം ഉണ്ട് നമ്മള് സോഷ്യലിൽ നമ്മള് ചരിത്രം പഠിക്കുന്നുണ്ട് ചരിത്രപരമായ സംഭവങ്ങള് നമ്മുടെ ഇന്ത്യയിൽ ഒത്തിരിയുണ്ട് ഇന്ത്യയിലും ഇന്ത്യല് പുറത്തും അതിലൊരു ഇന്ത്യയിലുള്ളൊരു ചരിത്രം തന്നെയാണല്ലോ നമ്മുടെ പിന്നെ താജ്മഹാൽ കുത്തബ്മിനാർ താജ്മഹാൽ പിന്നെ ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടന്ന സ്ഥലം പിന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം ഇവിടെ പദ്മനാഭസ്വാമി ക്ഷേത്രം അതൊക്കെ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളാണ് നൂറ്റാണ്ടുകൾക്ക് പഴക്കമുണ്ടെങ്കിലും അത് ഇന്നും നിലനിൽക്കുന്ന ഒന്നാണ് അപ്പോൾ നമുക്കതൊക്കെ ചരിത്രത്തിൽ നിന്നാണ് പിന്നെ മമ്മി സ്ഥിതിചെയ്യുന്ന ഈജിപ്തിലെ മമ്മികള് അതൊക്കെ ചരിത്രത്തില് കോടാനുകോടി വർഷങ്ങൾക്കു മുമ്പുള്ള കാര്യങ്ങളാണ് ചരിത്രത്തിൽ നിന്നും നമ്മളിലേക്ക് എത്തുന്നതാണ് ആ ചരിത്രം ആരോ എഴുതിയ ചരിത്രത്തി നിന്ന് പിൻ തലമുറകളിലേക്കെത്തിപ്പെട്ടതാണിതൊക്കേ